അ ഹലോ സാർ പറഞ്ഞോളു ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആണല്ലെ ആ ഓക്കെ നമുക്ക് ബൾക്കായിട്ട് ആണോ വേണ്ടത് അതോ നിങ്ങൾക്ക് വീ വീട്ടിലെ ആവശ്യത്തിന് മാത്രം മതിയോ ആ ഓക്കെ ആ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണോ അതോ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയാണോ അത് സേയില് ചെയ്യാൻ വേണ്ടിയാണേൽ നമുക്ക് ഡെ നിങ്ങളെല്ലാ മാസോം എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറച്ച് സാധനങ്ങൾ കിട്ടും നമുക്ക് പല ടൈപ്പ് ചായകളുണ്ട് ചായപ്പോടികളുമുണ്ട് നമുക്കിവിടെ മൂന്നാറാണല്ലോ ആ ഓക്കെ ശരി ഓക്കെ ശരി ശരി അ നമുക്ക് നാട്ടിലെ ചായക്ക് അറിയാലോ ആ നമുക്കിപ്പം മൂന്നാർൽ കിട്ടുന്നത് നമുക്ക് ടാറ്റായുടെ റ്റീയാണ് റൈപ്പിൾ റ്റീ ഉണ്ട് പിന്നെ തലയാറിന്റെ ചായപ്പൊടിയുണ്ട് പിന്നെ നിങ്ങൾക്ക് ഓർഗാനിക്കാണോ നമുക്കിത് ഇതക്കെ വിഷമടിക്കാണ് വിഷമടിച്ചാൽ വിഷമടിച്ച് വരുന്ന സാധനങ്ങളാണ് ഇപ്പം ഒരു വിഷം പോലും അടിക്കാതെ നമ്മുടെ കൊളുക്കുമല റ്റീ ഉണ്ട് അവിടുന്ന് അവരുടെ സ്വന്തം ബ്ലെൻറ്റൊണ്ട് നമുക്ക് വേണങ്കിൽ അതാണെങ്കിൽ ഹണ്ട്രെഡ് പെർസൻറ്റോർഗാനിക്കാണ് അ നാടിവളരെ നമുക്കുണ്ട് പക്ഷേ അതിച്ചിരി റേറ്റ് കൂടുതലായിരിക്കും സാധാരണ നമ്മുടെ ച ടാറ്റേടെ എന്താ പറയുക ചായപ്പൊടിയെക്കാളക്കെ റേറ്റ് കൂടുതലാണ് ഓർഗാനിക്കായതുകൊണ്ട് അപ്പം അത് സട്ടിഫെ അത് നമുക്ക് കാണാല്ലോ അതിന് കുഴപ്പമൊന്നുമില്ല അ നമുക്ക് വേണങ്കിൽ നമുക്ക് ത തലയാറിന്റെ വേണേൽ തലയറിന്റെ ഉണ്ട് തലയാറിന്റേം റേറ്റ് കുറവാണ് ഉള്ളതിൽ റേറ്റ് കുറവ് തലയാറാണ് അത് നിങ്ങൾക്ക് ത് ബിസ്നെസ്സ് ചെയ്യാനെന്തേലും പ്ലാനൊണ്ടൊ അതായത് സെയില് ചെയ്യാനെന്തേലും പ്ലാനക്കെ ഉണ്ടേൽ തലയാറിന്റെ ആയിരിക്കും ബെസ്റ്റ്

ആ അപ്പോഴൊക്കെ നമുക്ക് തലയാറാണങ്കിൽ നമുക്ക് ബാൾക്കായിട്ട് മേടിച്ച് നിങ്ങൾ റീപ്പായ്ക്ക് ചെയ്താൽ മതി അപ്പം നല്ല മാർജിൻൽ സാധനം കിട്ടുകയും ചെയ്യും അ ഓക്കെ പിന്നെ അ ആ ഓക്കെ ഓക്കെ പിന്നെ ഈ ഓർഗാനിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണും നിങ്ങക്കതിനകത്തും ഒരു കുഴപ്പമില്ലാത്ത മാർജിൻ കിട്ടും വേണേൽ അതും കുറച്ചെടുത്ത് വെയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണവി ചായപ്പൊടി ഇപ്പം ആൾറെഡി വിഷമുള്ളത് കൊണ്ട് ആൾക്കാരീ ഓർഗാനിക്കക്കെ യൂസ് ചെയ്യുന്ന ഇപ്പം കുറച്ച് കാശുള്ള ആൾ വീട്ടിലക്കെ ആണെങ്കിൽ ഓർഗാനിക്കക്കെ യൂസ് ചെയ്യും ആ ആ അപ്പം അങ്ങനെയാണ് അപ്പം നീ വിളിച്ചാൽ മതി എവിടെയാണ് ഉള്ളത് മൂന്നാറുണ്ടോ ആ ഓക്കെ ശരി ശരി അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ ഫ്രീയാണ് അപ്പം നാളെ വേണേലൊന്ന് വിളിച്ചാൽ മതി നമുക്ക് മീറ്റ് ചെയ്യാം എന്നിട്ട് ടാറ്റേടെ ആ വന്നാൽ മതി പാർട്ടീനെ നമുക്ക് കാണുകയും ചെയ്യാം ഓക്കെ ശരി